ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ ബൈബിളിലെ സുവർണ്ണ നിയമം എന്നറിയപ്പെടുന്ന മനോഹരമായൊരു വാക്ക്യമാണിത് ശരിക്കും ഈ വാക്ക്യം വായിച്ചു കഴിഞ്ഞതിനു ശേഷം ഞാനെൻ്റെ ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കു കാണാവുന്ന ഒരു വലിയ സത്യമുണ്ട് പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ സ്വാർത്ഥതയ്ക്കു വേണ്ടി ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടു കൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ പരാജയങ്ങൾ ഏറെയാണ് എന്നാൽ അതേ സമയം എൻ്റെ സഹോദരനെയും എൻ്റെ ചുറ്റുമുള്ളവരെയും പരിഗണിച്ചുകൊണ്ട് അവരെയും കൂടി മുൻ നിർത്തി ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ശരിക്കും വചനം പറയുന്നതുപോലെ ഞാനെങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതു പോലെ തന്നെ മറ്റുള്ളവരിലേക്കു പെരുമാറുമ്പോൾ അവിടെ വലിയ വലിയ നന്മകൾ പൂത്തുവരുന്നതായിട്ട് കാണാനായിട്ടു സാധിക്കുന്നുണ്ട് ശരിക്കും ജീവിതത്തിൽ ഓരോ ദിവസം മുന്നോട്ടു പോകുമ്പോൾ ഈ വചനം ആഴത്തിൽ പതിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ശരിക്കും മറ്റുള്ളവർ നമ്മളോട്ടു നന്നായിട്ട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മനുഷ്യരോരുത്തരും അതിനപ്പുറത്തേക്ക് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറും എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് ഈ ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയെ മൊത്തത്തിൽ തച്ചുടക്കുന്ന ഒരു വലിയ വചന ഭാഗമാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെതന്നെ നിങ്ങൾ അവരോടു പെരുമാറുവിൻ എന്നത് ശരിക്കും മറ്റുള്ളവരോട് നമ്മൾ നമ്മളോട് പെരുമാറുന്നതു പോലെ പെരുമാറിയാൽ പല പ്രശ്നങ്ങളും ഇല്ലാതാകും പല സങ്കടങ്ങളും സങ്കടങ്ങളില്ലാതായിമാറും സ്നേഹം പൂത്തുലഞ്ഞ് നിൽക്കും വചനത്തിൽ തന്നെ പറയുന്നുണ്ട് സ്നേഹമില്ലെങ്കിൽ നീ ചിലമ്പുന്ന ചേങ്ങലയോ കിലുങ്ങുന്ന കൈതാളമോ ആണ് പക്ഷെ സ്നേഹം സകലതും ക്ഷമിക്കുന്നു സ്നേഹം സകലതും അംഗീകരിക്കുന്നു സ്നേഹം അഹങ്കരിക്കുന്നില്ല സ്നേഹം സർവ്വവും തന്നിലേക്ക് സ്വീകരിക്കുന്നു ഈയൊരു സുവർണ്ണ നിയമം പാലിക്കുമ്പോൾ ജീവിതത്തിൽ ചുറ്റുമുള്ളവരോടുമായി വലിയ സ്നേഹ ബന്ധത്തിലായിരിക്കാനായിട്ടു സാധിക്കും ശരിക്കും എമ്പതി എന്നു പറയുന്ന വലിയൊരു വാക്ക് ആ വാക്കിൻ്റെ പൂർവ്വ അർത്ഥം ശരിക്കും ഈ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ അവസ്ഥ അറിഞ്ഞാൽ മാത്രം എനിക്ക് അവനെ സഹായിക്കാനായിട്ടു സാധിക്കുകയുള്ളു എൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ ഞാൻ അവനെപോലെ ഇന്നു ചിന്തിക്കണം ഒരു പക്ഷെ അവൻ്റെ സ്ഥാനത്തു ഞാൻ എന്നെ തന്നെ വെച്ചു കാണണം അപ്പോൾ നമുക്ക് മനസ്സിലാകും ശരിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് അപരൻ്റെ ദുഃഖങ്ങളിൽ നമ്മൾ അവരായി നിന്നു ചിന്തിക്കുക എന്നുള്ളത് ഈ സുവർണ്ണ നിയമം ഓരോ മനുഷ്യവ്യക്തികളുടെ ജീവിതത്തിലും വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്നൊന്നാണ് മറ്റൊന്നും കൊണ്ടല്ല ഒരു പക്ഷെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ സങ്കടങ്ങൾ തിരിച്ചറിയാനും ഒരു പക്ഷെ നമുക്കു തോന്നുമായിരിക്കും അവൻ ആ കാണിക്കുന്ന അഹങ്കാരമാണ് ഇല്ലെങ്കിൽ അവൻ്റെ ദേഷ്യമാണ് പക്ഷെ അതിലപ്പുറത്തേന് എന്തു കൊണ്ടവനതു കാണിക്കുന്നു എന്നു ചിന്തിക്കുകയും ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഞാൻ ദേഷ്യം കാണിക്കാറുള്ളത് ഒരു പക്ഷെ അതേ സാഹചര്യത്തിലാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പെരുമാറുന്നതാണെങ്കിൽ നമുക്കാമനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ മനസ്സിലാക്കുന്നതു വഴി വീണ്ടും ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ സ്നേഹബന്ധത്തിലേക്കു വളരുവാനായിട്ടു സാധിക്കും പല ബന്ധങ്ങളുടെയും തകർച്ചയില്ലാതെ തകർച്ചയിൽ പല ബന്ധങ്ങളും തകർച്ചയിലേക്കു പോകുന്നതിൻ്റെ പ്രധാന കാരണം എനിക്കെല്ലാം വേണം പക്ഷെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്ത് കൊടുക്കും എന്നതിനെ പറ്റി ചിന്തിക്കാത്തതാണ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഏതു പോയിൻറ്റിലങ്ങനൊരു വ്യക്തി ചിന്തിച്ചു തുടങ്ങും അന്നവൻ്റെ ജീവിതം മാറി മറിയും അന്നവൻ ഒരു മനോഹരമായ ഒരു വ്യക്തി ആയിട്ടു മാറും അതു പോലെത്തന്നെ അവൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെയും മനോഹരമായ വ്യക്തികളായിട്ടു കാണാനും അവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ഒരാൾക്ക് സാധിക്കും ശരിക്കും മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരോടു പെരുമാറുക സുവർണ്ണ നിയമം തന്നെയാണ് ഓരോ മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ നിയമം ആ നിയമത്തിലോട്ടു ചേർന്നു നിന്ന് ഓരോ മനുഷ്യനെയും നമ്മുടെ സ്നേഹബന്ധത്തിലേക്കു ചേർത്തു നിർത്താനും അങ്ങനെ കൂടുതൽ സ്നേഹത്തിൽ ആഴപ്പെടാനും സാധിക്കട്ടെ എന്നെ ഈ വചനം സ്വാധീനിച്ചതു പോലെ ഓരോരുത്തരെയും ഈ വചനം സ്വാധീനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ